ഓക്കെ ട്രെയിനിനെ കുറിച്ച് പറയുവാണെങ്കില് ഞാന് എൻ്റെ കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്നപ്പോഴായിരിക്കും മിക്കവാറും ട്രെയിനില് കയറിയിട്ടുള്ളത് എൻ്റെ നാട്ടിലോട്ട് പോവാൻ അന്ന് എൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കും എന്നെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറ്റിയിട്ടുണ്ടാവുക അപ്പോ ആദ്യം ഒരു ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കില് ഭയങ്കര വലിയൊരു വാഹനമാണ് ട്രെയിൻ പബ്ലിക് ട്രാൻസ്പ്പോർട്ടാണ് ട്രെയിൻ നമ്മുടെ ഏറ്റവും കൂടുതല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഉപയോഗിക്കുന്നൊരു ആ കാര്യമാണ് ട്രെയിനെന്ന് പറയുന്നത് ട്രെയിനില് ട്രെയിനില് നമ്മള് നോക്കുവാണെങ്കില് ജെനറലുണ്ട് ഇപ്പോള് സ്ലീപ്പർ ക്ലാസ്സ് കോച്ചുകളുണ്ട് അതുപോലെത്തന്നെ ഇതുണ്ട് ഏ സി കമ്പാർട്ട്മെൻസുണ്ട് ഏ സിയിലും ഫസ്റ്റ് ഏ സി സെക്കൻഡ് ഏ സി തേഡ് ടയർ ഇപ്പോള് തേഡ് എക്കണോമീന്ന് പറഞ്ഞൊരു സംഭവും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുവാണെങ്കില് നമ്മള് ട്രെയിനിലെ ജെനറലില് നോക്കുവാണെങ്കില് ആൾക്കാര് ജനറലില് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും വെറും നമ്മുടെ അൺറിസേർവ്ഡ് ജനറലിലും പിന്നെ സെക്കൻഡ് സീറ്റർ എന്ന് പറയുന്ന സംഭവം ആ അതില് അൺറിസേർവ്ഡിലാണെങ്കില് സീറ്റിങ് നിന്നും പോകാം ഇരുന്നും പോകാം ആർക്ക് വേണമെങ്കിലും ടിക്കറ്റെടുത്താൽ കയറാം നമ്മുടെ ബസ്സ് പോലെയുള്ള ഒരു സംഭവമാണ് ജനറലെന്നു പറയുന്നത് അപ്പോള് മിക്കവാറും എല്ലാ ട്രെയിനിലും ജെനറല് കമ്പാർട്ട്മെൻറ്റ്സ് ഭയങ്കര തിങ്ങി നിറഞ്ഞുള്ളതായിരിക്കും അതുകഴിഞ്ഞ് നമ്മള് സെക്കൻറ്റ് സീറ്ററിലാണെങ്കില് സീറ്റ് നമുക്ക് ഓരോ സീറ്റും അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും ആ സീറ്റിലായിരിക്കും നമ്മളിരിക്കുക ഇരിക്കുന്നത് ആൻറ്റ് സ്ലീപ്പറിലാവുമ്പോഴത്തേക്ക് സ്ലീപ്പറില് മൂന്ന് സ്ലീപ്പറില് മിക്കവാറും റിസര്വ് ചെയ്തു മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ മൂന്ന് മൂന്ന് എന്തായിരുന്നു മൂന്ന് ബർത്തുണ്ട് ഒരു സൈഡില് അങ്ങനെ ഒരു ആറ് ബർത്തുകൾ വരുന്ന ഒരു കംപാർട്മെൻറ്റ് അടങ്ങുന്നതായിരിക്കും ഒരു മീൻസ് കമ്പാർട്മെന്റുകളായിരിക്കും ഉള്ളത് അങ്ങനെ നമ്മള് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീതിയുള്ള സീറ്റുകളാണ് അവിടെ നമുക്ക് രാത്രി ഒരു രാത്രി ഒരെട്ടു തൊട്ട് രാവിലെ ഒരേഴുമണിവരെ കിടന്നുറങ്ങി സഞ്ചരിക്കാന് പറ്റും അത് വളരെ നല്ലൊരു ഓപ്പർച്യുണിറ്റിയാണ് അവസരമാണ് നാട്ടുകാർക്ക് കൊടുക്കുന്നത് അതുപോലെത്തന്നെ ഏ സി ഏ സി ഫെസിലിറ്റി നമ്മുടെ ഈ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോള് അതില് നോക്കുവാണെങ്കില് ഫസ്സ് തേർഡ് ഏ സി എന്ന് പറയുന്നത് സ്ലീപ്പര് പോലെത്തന്നെ പക്ഷെ ഏ സി ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പോള് സെക്കൻറ്റ് ഏ സിയാണെങ്കില് അവടൊരു കർട്ടനുംകൂടെ വരും കർട്ടനും അതുപോലെത്തന്നെ രണ്ട് സീറ്റ് അല്ല തേർഡ് ഏ സിക്ക് കർട്ടനും സെക്കൻഡ് ഏ സിക്ക് കർട്ടനും കൂടെ വരും ഇപ്പോള് ഫസ്റ്റ് ക്ലാസ്സാണെങ്കില് ഓരോ ക്യാബിനുകളായിരിക്കും അതിൻറ്റകത്ത് നാല് നാല് ബർത്തുകളായിരിക്കും ഒരു ക്യാബിൻറ്റകത്തുണ്ടാവുക അതാണ് ട്രെയിനിൻ്റെ സീറ്റിംഗ് അല്ലെങ്കില് ഇരിപ്പിട സൗകര്യങ്ങളെ പറ്റി പറയുവാണെങ്കില് അങ്ങനെ ഒക്കെയാണ് അതു കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടാല് ഭയങ്കര ബഹളം ഉള്ള ഒരു വസ്തുവാണ് ട്രെയിന് അപ്പോള് അത് ആ ഒരു പാളത്തിലൂടെ സഞ്ചരിക്കുമ്പോള് ഉണ്ടാകുന്ന ഭയങ്കര ബഹളമുള്ള ഒരു സൗണ്ടാണ് അതില്നിന്ന് വരുന്നത് അതുപോലെത്തന്നെ എഞ്ചിനുകൾ മെയിൽ അല്ലെങ്കില് ഒരു ഇൻറ്റർകണക്ടഡ് ട്രെയിനൊക്കെയാണെങ്കില് രണ്ട് എഞ്ചിനുകൾ ഉണ്ടാകും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കില് നമ്മള് അല്ലാത്ത എഞ്ചിനുകളൊക്കെയാണ് ഉണ്ടാകുന്നത് അതുപോലെത്തന്നെ കറണ്ട് വൈദ്യുതി ഉപയോഗിച്ചാണ് ഇപ്പോള് ഇന്ത്യയില് ട്രെയിനുകള് പ്രവർത്തിച്ചുവരുന്നത് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ് പിന്നെ ടയര് നോക്കുവാണെങ്കില് അല്ലെങ്കില് നമ്മുടെ ചക്രങ്ങൾ നോക്കുകയാണെങ്കില് ട്രെയിനിൻറ്റേതെന്ന് പറയുന്നത് മെറ്റലുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടിക്കറ്റുകൾ ടിക്കറ്റില്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറാൻ പറ്റൂല അകത്ത് കയറിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഫൈനടിക്കും അപ്പോള് ട്ടിക്കറ്റില്ലാതെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റത്തില്ല ടിക്കറ്റ് റിസേർവ്ഡും ഉണ്ട് അൺ റിസേർവ്ഡായിട്ടുള്ള കാറ്റഗറിയും ഉണ്ട് റിസർവ്ഡ് ആണെങ്കില് നമുക്ക് സ്ലീപ്പര് അതുപോലത്തെ സംഭവങ്ങളിലൊക്കെ കയറാം സ്ലീപ്പർ ഏ സിയിലും കയറാം അൺറിസേർവ്ഡ് അതുപോലെ സെക്കൻഡ് സീറ്ററിലും റിസേർവ്ഡ് ആണെങ്കില് കയറാം അൺറിസേർവ്ഡ് ആണെങ്കില് അൺറിസേർവ്ഡ് നമ്മുടെ ജെനറൽ കോച്ചില് കയറി യാത്ര ചെയ്യാവുന്നതാണ്